ആ ഹലോ കണ്ണപ്പൻ ചേട്ടനാണോ ചേട്ടനല്ലേ മ്മ് ആ നമ്മളീ കേരളത്തിലേക്കൊരു ട്രിപ്പ് വരാനായിട്ടായിരുന്നു അപ്പം ചേട്ടന് എല്ലാ കാര്യവും കേരളത്തിലെ മിക്ക സ്ഥലത്തിനെയും പറ്റിയിട്ട് എല്ലാത്തിനെയും പറ്റിയിട്ട് അറിയാമെന്ന് ഇങ്ങനെയൊരാള് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പോള് നമ്മള് അവിടെ വന്നുകഴിഞ്ഞാല് പറ്റുന്ന കാണാന് പറ്റുന്ന വല്ല സ്ഥലങ്ങളും ട്രിപ്പ് പൊളി മൂഡായിട്ടുള്ള സ്ഥലങ്ങളും അവിടെ എവിടെയൊക്കെയാണെന്നൊന്ന് അറിയാനായിട്ടായിരുന്നു ആ ആ അപ്പോള് കുട്ടിക്കാനത്ത് എന്തൊക്കെയാണുള്ളത് കുട്ടിക്കാനത്ത് നിന്നല്ല ഞാൻ വിളിക്കുന്നത് ഞാനിപ്പോള് അമേരിക്കയില് നിന്നായിരുന്നു ആ അതെ ഈ ഏത് സീസണിലാണ് ഏത് സീസണിലാണ് വരാനായിട്ട് നല്ലത് ആ ആണല്ലേ ആ അപ്പോള് ടെമ്പറേച്ചറൊക്കൊ എങ്ങനെയായിരിക്കും ഈ മൈനസ് ഡിഗ്രിയില് പോകുമോ മൈനസ് ഡിഗ്രിയില് പോകുമോ ആണല്ലേ ആ ഹാ ഒ ഓ മ്മ് ആ കുട്ടിക്കാനത്ത് വേറെ എവിടെയൊക്കെയാണ് സ്ഥലമുള്ളത് കുട്ടിക്കാനത്ത് എന്തൊക്കെ സ്ഥലങ്ങളാണുള്ളത് നമ്മളീ മദാമ്മക്കുളമെന്ന് അങ്ങനെയൊരു സ്ഥലത്തിനെപ്പറ്റി കേട്ടിട്ടുണ്ട് ആ മദാമ്മക്കുളത്തില് എന്താണുള്ളത്

ആ അമ്മച്ചിക്കൊട്ടാരം അതെന്താണ് ആ അമ്മച്ചിക്കൊട്ടാരത്തില് എന്താണുള്ളത് അമ്മച്ചിയുണ്ടോ

അത്രയെയുള്ളൂ ആ ആ പിന്നെ പിന്നെ പിന്നെ പരുന്തുമ്പാറ പരുന്തുമ്പാറ അതെന്താണ് ആ ആ ഓക്കെ ഓക്കേ ഓക്കെ ആ ഇല്ല ആ ഞാനിങ്ങനെ ഗൂഗിളില് നോക്കിയപ്പോള് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ടായിരുന്നു പിന്നെ നമ്മുടെ പാഞ്ചാലിമേട് അതെന്താണ് ആ ഹാ ഹാ ആ ഹാ ആ ആ ആ അ ആ ഇടുക്കിയില് നിന്ന് ഇവിടെനിന്ന് എന്താണ് കുട്ടിക്കാനത്ത് നിന്ന് അടുത്താണല്ലെ ആ എനിക്ക് അടുത്ത മാസത്തേക്ക് അടുത്ത മാസത്തേക്ക് വരാനായിരുന്നു അതെ ആ ആ ആ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യണം ആ അതേ അതേ അതേ ആ ഇപ്പോള് നല്ല റഷാണല്ലോ ഈ നല്ല സീസൺ ടൈം ആണല്ലോ സീസൺ ടൈമായതുകൊണ്ട് നല്ല റഷായിരിക്കും ആ ആ ആ ഇപ്പോള് ഈ ഇപ്പോഴത്തെ ഞാനിങ്ങനെ റീൽസിലൊക്കെ ഇൻസ്റ്റാ റീൽസിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഈ ഓരോരോ പിള്ളാര് ആ അതുതന്നെ ആ മൂന്നാറിലെന്താണ് പിള്ളേരൊക്കെ എന്തോ ഒരു സാധനമിങ്ങനെ വലിച്ചുകയറ്റിയിട്ട് ഇങ്ങനെ കിളിപാറിയത് പോലെ നടക്കുന്നത് അതെന്ത് സാധനമാണത് അതൊക്കെ ട്രൈ ചെയ്യാന് പറ്റുമോ വന്നുകഴിഞ്ഞാല് ആ ആ ആ മൂന്നാറില് മറ്റേ എന്തോ ഒരണ്ണൻ മറ്റേ മസാലയൊക്കെ ഇങ്ങനെ വലിപ്പിച്ചിട്ട് ആ അതെന്ത് ആ പൂന്തിരാജൻ ആ രാജനെന്ന് ആ മൂക്കിലൊക്കെ സാധനമൊക്കെ വെച്ചിട്ട് വലിപ്പിച്ചിട്ട് ആ അതൊക്കെ അതൊക്കെ എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ട് ആ ഓ ഓ ഓക്കെ ഓക്കെ ഓക്കേ ഓക്കെ എന്നാല് എന്നാല് ഓക്കെ ചേട്ടാ